ഗാഡനിങ് പൂന്തോട്ടത്തില് കൃഷി തുടങ്ങുന്ന തുടക്കക്കാർക്കായിട്ട് നുറുങ്ങുകള് പങ്കുവെക്കാനുള്ളത് ആദ്യം തന്നെ നല്ല മണ്ണായിരിക്കണം നല്ല കിളച്ച് മറിച്ച് നല്ല ഉഴുത മണ്ണായിരിക്കണം ആ നല്ല മണ്ണും നല്ല വെള്ളവും നല്ല സൂര്യപ്രകാശവുമുള്ള സ്ഥലത്തായിരിക്കണം നമ്മളീ പൂന്തോട്ടം ഉണ്ടാക്കേണ്ടത് അവിടെനിന്ന് വേണം നമ്മളോരോന്നും അതായത് നമുക്ക് ജലാംശം നന്നായി തങ്ങിനില്ക്കാനും സൂര്യപ്രകാശം നന്നായി കിട്ടിയെങ്കില് മാത്രമേ നമുക്കീ പൂന്തോട്ടം പൂത്തുലഞ്ഞ് നില്ക്കുകയുള്ളൂ അപ്പോള് അതിനുവേണ്ടി നമ്മള് ചെയ്യാനുള്ള നുറുങ്ങുകളെന്ന് പറയുന്നത് ആദ്യം തന്നെ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക നമ്മുടെ വീടിൻ്റെ അതായത് നമുക്കെപ്പോഴും വെള്ളവും നമ്മള് എപ്പോഴും നമ്മളെ നമുക്ക് അതിനെ സ്നേഹിക്കണം ചെടികളെ സ്നേഹിക്കാനായിട്ട് നമുക്ക് അതിനെ നോക്കാനായിട്ട് കെയറിങ്ങുള്ള സ്ഥലം അതായത് വീടിനോട് അനുബന്ധിച്ചുതന്നെ നിങ്ങള്ക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തായിരിക്കണം ഇതിനെ ചെയ്യാന് പൂന്തോട്ട കൃഷി തുടങ്ങണം അതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താന്നുവച്ചാൽ അങ്ങനെ തുടങ്ങിയാല് മാത്രമേ നമുക്ക് അതിനെ എപ്പോഴും നോക്കാനും പിടിക്കാനുമൊക്കെ പറ്റുള്ളൂ അപ്പോള് നല്ല സൂര്യപ്രകാശം മണ്ണ് ജലം ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് അതുപോലെ തന്നെ പുഴുക്കള് വരാതെ അതായത് അധികം പുഴു ശല്യമില്ലാത്ത സ്ഥലം നോക്കി വേണം ചെയ്യാൻ അതിന് കൃത്യമായി ഓരോ ചെടിയും വെക്കുമ്പോഴും അതിന് കൃത്യമായ വളങ്ങൾ ഇപ്പോള് ചാണകമോ അല്ലെങ്കില് അതിൻ്റെ രാസവളം എന്തേ ഇടുകയാണെങ്കിലും അതനുസരിച്ച് വളം ഇടാനുള്ളൊരു സംവിധാനം നമ്മള് കാണണം അതുപോലെ തന്നെ ചെടിച്ചെട്ടി അത് ഇപ്പോള് നമ്മള് ചിലര് കാണാം ടെറസുകളിലൊക്കെയും പൂന്തോട്ടം ഉണ്ടാക്കുന്നത് അപ്പോള് വെള്ളം ഒഴിക്കുന്നതിന് അപ്പോള് ഒരു സാഹചര്യം വേണം ആ സാഹചര്യം ഉള്ള സ്ഥലാണെങ്കിലോക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോള് അങ്ങനെ ചെയ്യാണെങ്കിലും നമുക്ക് പൂന്തോട്ടത്തില് നല്ല വെള്ളം ഒഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ നമുക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ ടെറസ്സിൻ്റെ മുകളിലോ ഇപ്പോള് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ചെയ്യാം എത്രയായാലും നമുക്ക് വെള്ളം കിട്ടണം അതിനെ ശുശ്രൂഷിക്കണം നന്നായിട്ട് അതായത് മുളയിലേതന്നെ പുഴുക്കള് ഉണ്ടെങ്കിൽ അത് നുള്ളിക്കളഞ്ഞ അതനുസരിച്ച് അതിനെ എന്തെങ്കിലും മിശ്രിതങ്ങളൊക്കെ ചേർത്ത് അതിനെ പുഴു എടുത്ത് കളഞ്ഞാല്ത്തന്നെ നന്നായി പുഷ്പിച്ചുവരും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കുറേകാര്യങ്ങളുണ്ട് അപ്പോള് അതൊക്കെ ചെയ്താല്ത്തന്നെ പൂന്തോട്ടം നന്നായിവരും അത് നമ്മുടെ സൂര്യപ്രകാശം ആണ് ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യങ്ങള് അത് നന്നായി ചെയ്യുക പൂന്തോട്ടത്തില് പൂക്കള് ധാരാളം ഉണ്ടാവും അതനുസരിച്ച് ഇലകള് ഉണ്ടെങ്കിൽ അത് പെറുക്കിക്കളയുക കരിഞ്ഞ പൂക്കളുണ്ടെങ്കില് അത് കയ്യോടെ വെട്ടിക്കളയുക ബഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോല തന്നെ പലപ്പോഴും കണ്ടുവരുന്നൊരു ഒരു പ്രക്രിയ എന്താണെന്നുവച്ചാല് ആദ്യം തുടക്കത്തിലൊക്കെ തന്നെ ആവേശമാണ് പിന്നെ കഴിയുമ്പോള് നമ്മള് ശ്രദ്ധിക്കാറില്ല അപ്പോള് അത് മുഴുവൻ കരിഞ്ഞുപോവും അപ്പോള് അങ്ങനെ വന്നാല്ത്തന്നെ നമ്മള് ആ മണ്ണോടുകൂടി അതിനെ എടുത്ത് മാറ്റി പുതിയ ചെടികള് വെയ്ക്കാനും മാറി പെളകള് വന്നതിനെ പറിച്ചുനടണം പൂക്കള് വന്നത് വെട്ടിവയ്ക്കണം പുതിയ പുതിയ തണ്ടുകള് വയ്ക്കണം ഒരു റോസ് കൊമ്പോ റോസ് ആണെങ്കില് നമ്മള് അതെന്നെ ഒടിച്ച് അപ്പുറത്ത് റോസ് വെക്കുക അപ്പോള് ചെടികളിലേക്ക് കൂടുതല് പൂക്കള് അത്പോലെ ഉണ്ടാവും അപ്പോള് കുറേ നില്ക്കുമ്പോള് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും